ചേട്ടാ ഞാന് ഒരു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഡെലിവേഡ് കാണിച്ചിട്ട് സാധനം കിട്ടിയിട്ടില്ല ആ അടൂറ് ടെമ്പിളിന്റെ സൈഡിൽ കൂടെ കിടക്കുന്ന റോട്ടില് ഉള്ള വീട്ടിൽ നിന്നായിരുന്നേ അപ്പം ആ മിനിങ്ങാന്ന് ഓർഡർ ഡെലിവേഡ് ആയി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട് പക്ഷേ സാധനം ഇതുവരെ റിസീവ് ചെയ്തിട്ടില്ല അപ്പം നമുക്ക് അത് എന്താ ചെയ്യാൻ പറ്റുന്നത് ആ അതിനെന്താ ഒരു പരിഹാരമുള്ള എങ്ങനെയാണ് ഇതിന്റെ അടുത്ത റീഫണ്ട് കിട്ടുവാണോ അതെയോ എനിക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രോഡക്ട് ആയിരുന്നു പക്ഷേ ഇത് റീഫണ്ട് കിട്ടുമോ അതെയോ സ് മറ്റേ എന്താ സാധനം ഡെലിവറ് ചെയ്യുമോ ഉടനെ ചെയ്യുമോ ഇനി അത് ആർക്കേലും മാറിപ്പോയതാണോ ഡെലിവറ് ചെയ്തവരുടെ ഉത്തരവാദിത്തക്കുറവാണോ അതെല്ലാം ഒന്ന് അന്വേഷിച്ചിട്ട് ഒന്ന് പറയാമോ കാരണം ആ അതിന് പൈസ പേ ചെയ്തതായിരുന്നു പക്ഷേ സംഭവം കിട്ടിയിട്ടില്ല സാധനം കിട്ടുവാരുന്നെങ്കില് ഉപകാരമായിരുന്നു ഇല്ലെങ്കില് റീഫണ്ട് ചെയ്യുവാണെങ്കില് എനിക്ക് സാധനം വീണ്ടും ഓർഡർ ചെയ്യാമായിരുന്നു ഇനി ഇപ്പം താങ്കൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നം അല്ലെങ്കില് നിങ്ങൾടെ മുകളിലുള്ള അതോറിറ്റിയുടെ നമ്പറ് തന്നാലും മതി അപ്പം വിളിച്ച് ചോദിക്കാമല്ലൊ എന്താണ് അടുത്ത നടപടി എങ്ങനെയാണ് ഇത് റിക്കവറ് ചെയ്തെടുക്കാൻ പറ്റുന്നത് അല്ലെങ്കില് ഫണ്ട് എങ്ങനെ തിരിച്ച് കിട്ടും എന്നുള്ള കാര്യം ചോദിക്കാനായിട്ട് പറ്റുവല്ലോ അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി തരികയാണെങ്കിൽ നല്ലതായിരിക്കും അതിനകത്ത് ഇപ്പം കുറെ ദിവസമായി ഡെലിവേഡ് കാണിച്ചിട്ട് മിനിങ്ങാന്ന് കാണിച്ചു ഇന്നലെ ഞാന് കോണ്ടാക്റ്റ് ചെയ്യാന് ശ്രമിച്ചു പക്ഷെ കിട്ടിയില്ല ഇന്ന് വീണ്ടും കോണ്ടാക്റ്റ് ചെയ്യാന് നോക്കിയപ്പൊഴാണ് കണക്ട് ആയി കിട്ടിയത് എന്നും ഇങ്ങനെയൊരു ചെറിയ പ്രൊഡക്റ്റിന്റെ പേരിലെനിക്ക് നടക്കാനായിട്ട് ഒന്നാമത്തെ കാര്യം സമയമില്ല രണ്ടാമത്തെ കാര്യം ഇങ്ങനൊരു കണ്ടിജന്സി വരുവെന്ന് ഒട്ടും പ്രതീക്ഷ ഇല്ല എന്തായാലും ഉടനെ അത് പരിഹരിച്ച് തരും എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഇപ്പം പരിഹരിക്കാന് പറ്റിയില്ലെങ്കില് റീഫണ്ട് ചെയ്ത് തന്നാലും മതി അല്ലെങ്കില് റീഫണ്ട് ചെയ്യാനായിട്ട് ഞാനെന്ത് ചെയ്യണം എന്നുള്ള കാര്യം വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു തരണം അപ്പം